ആ അതെ പറഞ്ഞോളൂ ആ ഓഫർ ഉണ്ട് സാർ സാറിന് എൻ നമുക്ക് ഷുഗറിന് ഇപ്പോൾ വൺ കെ ജി ടു റുപ്പീസിനുണ്ട് പിന്നെ വെജിറ്റബ്ൾസിനൊക്കെ അതെ അതെ അതെ വെറും ടൂ റുപ്പീസ് അതായത് വൺ കെ ജി മാത്രം അതിൽ കൂടുതൽ വരുവാണെങ്കിൽ അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്യണം കാർഡ് ഉണ്ട് കാർഡ് ഉണ്ട് നമുക്ക് കാർഡിൽ മാത്രമാണ് അതെ അതെ കാർഡിന് ട്വൻറ്റി റുപ്പീസേ ഉള്ളൂ കാർഡ് ഇവിടെ വന്നിട്ട് നമുക്കെടുക്കാം പിന്നെ വെജിറ്റബിൾസിന് വരുന്നുണ്ട് റൈസിന് വരുന്നുണ്ട് പിന്നെ ഫിഷ് ഐറ്റംസിനൊക്കെ അത്യാവശ്യം ഓൾറെഡി നമ്മൾ ഡിസ്കൗണ്ട് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് ഓഫർ ആയിട്ട് അങ്ങനെ വരുന്നില്ല നമുക്ക് ഒരു ഫോർട്ടി റുപ്പീസിന് ചെയ്ത് തരാൻ പറ്റും ഇതെല്ലാം നമുക്ക് വൺ കെ ജി വെച്ചെടുക്കുവാണെങ്കിൽ ആ വൺ കെ ജി റെ ഇതിന് മാത്രമാണ് നമ്മൾ ഓഫർ കൊടുക്കുള്ളൂ ബൾക്ക് ആയിട്ട് എടു അങ്ങനെയാണെങ്കിൽ നമ്മൾ അല്ലാണ്ട് ഡിസ്കൗണ്ട് ചെയ്ത് തരുള്ളൂ സാർ ഓഫർ ഉണ്ടാവില്ല സാറിന് ഇപ്പോഴത്തേക്കാണോ ആ ഫംഗ്ഷന് വേണ്ടിയിട്ടാണല്ലേ ആ സാറിന് എന്തൊക്കെ ഐറ്റംസ് ആയിരിക്കും വേണ്ടി വരിക ആ ഓക്കെ ഉള്ളിയിപ്പം നമുക്ക് ട്വൻറ്റി സിക്സിന് ചെയ്യാം ആ ഓക്കെ മനസ്സിലായി റൈസ് ഇപ്പോൾ നമുക്ക് എ എത്ര കെ ജി ഇറക്കേണ്ടി വരും ആ അമ്പത് കിലോൻറെ ഉണ്ടാവും സാർ ഇല്ലയില്ല കുഴപ്പമില്ല സാർ ആ ഓക്കെ നമ്മുടെ അടുത്തുനിന്ന് തന്നെ ചെയ്യുവാണോ സാർ എടുക്കാൻ പ്ലാൻ ആയോ ആ ഓക്കെ സാർ അങ്ങനെ ചെയ്താൽ മതി ആ ഓക്കെ സാർ വരുന്നതിന് മുമ്പൊന്ന് വിളിച്ചിട്ട് വരൂ കേട്ടോ